പിന്നെ വാർത്ത താരങ്ങളുമായിട്ട് നമ്മള് സെലിബ്രറ്റികളൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങള് വരുമ്പോള് എല്ലാവരും ഓരോ ഫോട്ടോ ഷൂട്ടിലിങ്ങിലേക്കോടും എക്സാമ്പിള് നമ്മളൊരു കല്യാണ മണ്ഡപത്തിലാണെങ്കില് അവിടെ ഈ നമ്മള് സെലിബ്രെറ്റികളൊക്കെ വരുമ്പോള് അവരുടെ മുന്നിലേക്ക് എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകും അപ്പോള് മറ്റുള്ള മറ്റുള്ള ജനങ്ങളും മാറി നില്ക്കേണ്ടി വരുന്നു അവർക്ക് ഇതൊന്നും കാണാനായിട്ട് പറ്റുന്ന അവസരമല്ല അവർക്കൊന്നും ഒന്നും കാണാന് പറ്റത്തില്ല അവറേ സെലിബെറായേറ്റി സെലിബ്രെറ്റികള് എന്തെയ്യുന്നോ അവരെ നോക്കിക്കൊണ്ടെല്ലാവരും ഫോട്ടോ ഷൂട്ടീയ്യുന്നു അങ്ങോട്ടാണ് ഭയങ്കര വൻ തിരക്കായിട്ട് പോകുന്നത് ഇപ്പഴാണെങ്കില് നമുക്കിപ്പോള് യൂ ട്യൂബ് വഴിയൊക്കെയാണെങ്കില് അവരുടെ വാർത്താ പിടിച്ചു പറ്റാന് വേണ്ടി അവരോരോന്നും ഓരോ വ്യക്തികളും ഓരോ തരത്തിലിങ്ങനെ ഓരോ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നുവച്ചാല് ഒത്തിരി തമാശകള് കാണും പിന്നെ ഒത്തിരി സാധനം ഉണ്ടാക്കുന്ന രീതികള് അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും യൂ ട്യൂബ് അപ്പോള് എല്ലാവരും നോക്കുന്നുണ്ട് ഓരോ കല്യാണം ഓരോ കല്യാണങ്ങള് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളുണ്ടാക്കുന്ന രീതികള് അതിലെ ഓരോ നല്ല നല്ല ഡാൻസും പരിപാടികള് പാട്ടുകള് ഇങ്ങനെയൊക്കെ വരുമ്പോള് നമ്മളെല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളില് നമുക്ക് താല്പര്യം തോന്നും കാരണം എന്നാന്ന് വച്ചാല് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നല്ല ഉന്മേഷവും മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുവാനും നമുക്ക് സാധിക്കും അവരും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ചിരിക്കാനും ഒന്ന് കാണിച്ചേന്ന് പറയുമ്പോള് നമ്മളിതൊയൊക്കെയൊന്ന് കാണിച്ചു കൊടുക്കത്തില്ലേ പിന്നെ സെലിബ്രേറ്റികളൊക്കെ വരുമ്പോള് അവരുടെ സ്വകാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം എല്ലാവരും അങ്ങോട്ടിടിച്ചു കയറും മറ്റുള്ള ഇതിലേക്ക് നോക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ജനങ്ങള് ആ മറ്റുള്ള ഇതിലേക്ക് അവർക്കൊരു ഫ്രീഡം കൊടുക്കാതെ അവരുടെ കാര്യങ്ങളിലേക്ക് തള്ളി മാറുന്ന ഒരു സ്വഭാവം ജനങ്ങൾക്കുണ്ട് പിന്നെ ഇപ്പോള് യൂ ട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ